തീർച്ചയായും നമ്മുടെ രചനകളിലൂടെ നമ്മളുടെ വരകളിലൂടെയും അങ്ങനുള്ള കലകളിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഊർജ്ജം നൽകാനും നമ്മുടെ സ്വഭാവശൈലികളൊക്കെ ഒരു നല്ല രീതിയിൽ മാറ്റം വരുത്താൻ ഒക്കെ നമുക്ക് സാധിക്കും നമ്മുടെ സ്വഭാവത്തിലൊരു അച്ചടക്കവും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവരെ ബഹുമാനിക്കാനും അതുപോലെ ചെറിയവരോട് സ്നേഹം കാണിക്കാനൊക്കെ നമുക്ക് സാധിക്കും പിന്നതു പോലെ ഡ്രോയിങ്ങിലൂടെ തന്നെ നമുക്ക് വാൾ പെയിൻറ്റുകൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ വഴിയും നമുക്ക് കൂടുതൽ സംഘാടന കഴിയുമ്പോൾ നമുക്ക് എന്താ അതിലൂടെ കിട്ടും

നമ്മുടെ ഈ ഡ്രോയിങ്ങിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി അഥവാ എന്താ പറയുക പുതിയ ചിന്തകളൊക്കെ നമുക്ക് കൊണ്ടു വരാൻ കഴിയും അഥവാ ഇപ്പം ഏതെങ്കിലും ഒരാളെക്കുറിച്ച് വരയ്ക്ക് വരയ്ക്കാൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും എന്താ പറയുക നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ വരച്ച് കൊണ്ട് നമുക്ക് അയാളെ വർണ്ണിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകണുണ്ട് ഈ ഡ്രോയിങ്ങിലൂടെ കിട്ടുന്നുണ്ട് അപ്പം മെയിനായിട്ട് നമുക്ക് പുതിയ ചിന്താശക്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമുക്ക് കിട്ടും ഭാവനകൾ അപ്പം അത് ആ പുതിയ കാര്യങ്ങൾ പുതിയ ലോകത്തേക്ക് കാര്യങ്ങളൊക്കെ വരച്ച് കാണിക്കാനും അത് നമ്മുടെ പുതിയ ചിന്തകളൊക്കെ എന്താകും പുറം ലോകത്ത് ഒക്കെ അറിഞ്ഞിട്ട് നമ്മുടെ എന്താകും ഒരു ഫെയിം ആയി മാറും പിന്നതു പോലെ ഈ ഡ്രോയിങ്ങിലൂടെ നമുക്ക് വളരെയധികം മറ്റു കാര്യങ്ങളിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലൊക്കെ വളരെയധികം ഉപകാരം ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഡ്രോയിങ്ങ് വരയ്ക്കുന്ന നമ്മളുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല നമ്മുടെ സമയം ഉപയോഗം ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രോയിങ്ങിലൂടെ ഡ്രോയിങ്ങും ചിത്രരചന അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപഴകാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിക്കാനൊക്കെ കഴിയും പിന്നതു പോലെ ഈ സംഘാടന കഴിവെന്ന് ഒക്കെ പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കാനും മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ് നമുക്ക് ഈ ഡ്രോയിങ്ങിലൂടെ കിട്ടും